എന്റെ അടുത്ത് ഒരുപാട് രണ്ട് രണ്ട് മൂന്ന് സ്പോർട്സ് സെന്ററുകൾ ഉണ്ട് രണ്ട് പ്രൈ ഒര് ഒരു ഗവർമെൻറ്റിൻ്റെ തന്നെ ഒരു സ്പോർട്സ് സെന്റർ ഉണ്ട് പിന്നൊരു രണ്ട് പ്രൈവറ്റിൻ്റെ സ്പോർട്സ് സെന്റർ ഉണ്ട് അതിലെല്ലാത്തിലും കുട്ടികൾ രാവിലെ വന്ന് കളികളുണ്ട് എല്ലാ രീതിയിലും ഉള്ള ഇപ്പം ഫുട്ബോളിനായാലും ഒരു ക്ലബ്ബോക്കെ ഉണ്ടിവിടെ എന്നും ഒരു നല്ല സ്പോർട്സിനെ ഫുൾ ഇൻകേർജ് എൻകറേജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം കുട്ടികൾക്കായാലും ഇപ്പം കളിക്കണം എന്ന് തോന്നിയാൽ അവിടെ പോയി നമുക്ക് കളിക്കാം ഒരുപാട് രീതിയിൽത്തന്നെ സ്പോട്ടിനെ സ്പോർട്ട്സിനെ നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ അവിടെയുണ്ട് നമ്മുടെ ഉള്ളിലെ സ്പോട്ട്സിനെ പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കാൻ എല്ലാ രീതിയിലുള്ള എക്വിപ്മെൻറ്റ്സും ഗ്രൌൻഡ് കളിക്കേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് സ്പോർട്സ് സെന്ററിൽ തന്നെ ലഭിക്കുന്നതാണ് ഞാനും ഒരുപാട് തവണ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ അവിടെ പോയി കളിക്കാറുണ്ട് നല്ലൊരു നല്ലൊരു ആമ്പിയൻസ് ആണവിടെ എല്ലാവർക്കും ഗേൾസിനും ബോയിസിനും എല്ലാവർക്കും വന്നു പങ്കെടുത്ത് കളിയ്ക്കാനുള്ളൊരു സ്പോർട്സ് സെന്ററാണ്